റെയിൽവേ സ്റ്റേഷൻ ബുക്കിംഗ് ഐ ഡി എത്രയാ ആരാ ആ പറ ആ ടിക്കറ്റോ ആണോ എന്നത്തേക്കാണ് എന്നത്തേക്കാ ഇരുപതാം തീയതിയിലേക്ക് അപ്പോൾ നമുക്ക് രാവിലെ മോർണിംഗിൽ ഒരു ട്രെയിനുണ്ട് ഈവനിംഗിലും ഉണ്ട് ഏതിലേക്കാണ് വേണ്ടത് മോളെ മോർണിംഗിൽ ആ മോർണിംഗിൽ മോർണിംഗിൽ ടൈം ആണെങ്കിൽ സിക്സ് തെർട്ടി ആണേ ആ ടിക്കറ്റ് ആ എന്നാൽ ഫോൺ നമ്പര് ഒന്ന് തന്നേക്കാവോ അന്നേരം ഇതിനകത്ത് നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഓൺലൈനിലേക്ക് ഇപ്പോൾ ടിക്കറ്റ് അവൈലബിൾ ആവും അന്നേരം പേ ചെയ്താൽമതി കേട്ടോ പൈസ ഓക്കെ താങ്ക് യു ഫോർ കോളിംഗ്